പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത് പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുവട്ടവും അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് പരിസ്ഥിതി മലിനീകരണത്തിലൂടെ നമ്മുടെ അസുഖങ്ങളും നമ്മുടെ ഓരോരോ നമ്മുടെ ദിനചര്യകൾ തന്നെ വരെ മാറിയേക്കാം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നു പറയുമ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പം പറയുന്നതാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ജല മലിനീകരണം മണ്ണ് മലിനീകരണം വായുമലിനീകരണം പല പല തരത്തിലുള്ള മലിനീകരണങ്ങളുണ്ട് ഈ മലിനീകരണങ്ങൾ തന്നെ കാരണമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പരിസ്ഥിതികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെന്ന് ഒക്കെ പറയാണേ ജലമലിനീകരണം ഓരോരോ ഫാക്ടറീസും അതുപോലെ തന്നെ ആൾക്കാരും കുളിക്കുക നനയ്ക്കുക അങ്ങനെ പല പരിപാടികളും ഈ വെള്ളത്തിലും തോടുകളിലും ഇറങ്ങി ചെയ്യും വെള്ളത്തിൽ ഇറങ്ങി തോട് ചെയ്യുന്നത് തന്നെ ആ ആ ജലം മലിനീകരണം ആകും ആ മലിനമാകുമ്പോൾ ആ ആ ജലം ആണ് നമ്മൾ നമ്മളും നാട്ടിലുള്ളവരും ഒക്കെ കുടിക്കുന്നത് ആ കുടിക്കുന്നതോടൊപ്പം തന്നെ പല പല തരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ ബാധിക്കും കോളറ പനി മഞ്ഞപ്പിത്തം അങ്ങനെ പല തരത്തിലുള്ള ആ വെള്ളത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് പിന്നെ ഉള്ളതാണ് വായു അതായത് ട്രാഫിക് ട്രാഫിക് മാത്രമല്ല റോഡുകളിലുള്ള ഉള്ള മലിനീകരണം അതായത് വണ്ടികൾ നിന്നുള്ള പുക പടലങ്ങൾ അല്ലാണ്ട് വീടുകളിൽ കത്തിക്കുന്ന പുകകൾ എല്ലാം കൂടെ ഒത്തിച്ചേർന്ന് അതൊരു വൻ പ്രശ്നമായി മാറുന്നതാണ് ഇതിനൊക്കെ നേരിടാൻ ഒരു ഒറ്റ വഴിയേ ഒള്ളു നമ്മൾ തന്നെ തീരുമാനിക്കുക ഓരോ ഓരോ ജനങ്ങളും ഈ ലോകത്തിലുള്ള ജനങ്ങളും ഒത്തുചേർന്ന് ഇതിനോടുള്ള പോരാടുക ഇതിനോട് പോരാടുമ്പോൾ എല്ലാ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഇതിന്നൊരു പ്രതിവിധി കിട്ടും ആ പ്രതിവിധി കിട്ടും ഓരോ ആൾക്കാർ അങ്ങനെ ഞാൻ ചെയ്യണില്ല ബാക്കിയുള്ളവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ആൾക്കാരും അത് അതിന് വേണ്ട ഒത്തരുമയോടെ ചെയ്താൽ മാത്രമേ ഇതിനുള്ള പ്രയോജനം ഉള്ളൂ ഇത് വളരെ ഒരു രൂക്ഷമായ ഒരു പ്രശ്നമാണ് ഈ പരിസ്ഥിതി മലിനീകരണം പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുമ്പോൾ വളരെ രൂക്ഷമാണ് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ പരിസ്ഥിതി മലിനീകരണം